മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുണ്ടോ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ കരുതുന്നുണ്ടോ മാധ്യമങ്ങൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകങ്ങളിൽ ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ രീതിയിലുള്ള സംസാരവും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ രീതിയിലുള്ള സംസാരവും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടേതായ രീതിയിലുള്ള പ്രവർത്തങ്ങളും അല്ലാതെ കണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സ്വകാര്യത അതിൽ പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ സാധാരണ സ്വകാര്യതയിൽ ഒരു സാധാരണ ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിൽ എല്ലാവിധ കാര്യങ്ങളും അവർ വലിച്ചു കീറി തുറന്നു നോക്കി എല്ലാ കാര്യ കാര്യങ്ങളും അവർ പറയും അവർക്ക് അതിനകത്ത് കുറച്ചു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യന് സ്വസ്ഥമായി ഇന്ന് ഒരു വഴിക്ക് ഒന്നു ഒരു യാത്ര ചെയ്യാനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വഴിക്ക് ഒന്ന് പോകാനോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അപകടങ്ങളോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരത്തേന് മാധ്യമങ്ങൾ അവിടെ ഓടി വന്നു അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അതാണ് ഇതാണ് എന്താണ് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു നിന്ന് എല്ലാ ഓരോ ഓരോ കാര്യങ്ങളും ചോദിച്ചു കിള്ളിക്കിഴിച്ചു അവർ ഓരോ ആവശ്യം ചോദിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിൽ ചോദിച്ചു അന്വേഷിച്ചു അവർ അങ്ങ് പോകും അവർ അ ങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞു വന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അന്വേഷണം